ഇന്ത്യയിലാകെ മൂ മൂന്ന് മതങ്ങളാണ് പ്രധാനപ്പെട്ടത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വീണ്ടും വേറെ മതങ്ങളുണ്ട് ജൈന മതം അങ്ങനെ കുറേ മതങ്ങളുണ്ട് എങ്കിലും ഇന്ത്യയിൽ പിന്തുടരുന്ന മതങ്ങൾ ഇത് മൂന്നുമാണ് അതിൽ ഹിന്ദു മതത്തിൻ്റെ അമ്പലങ്ങൾ മുസ്ലിം മതങ്ങൾക്ക് മുസ്ലിം പള്ളികൾ ക്രിസ്ത്യാനികൾക്കും പള്ളികൾ പിന്നെ അവരുടെ ആഘോഷങ്ങൾ ഇതിൽ വെച്ചിട്ട് ഹിന്ദുക്കൾക്കാണ് ആഘോഷങ്ങൾ കൂടുതൽ അത് തൃശ്ശൂർ പൂരം പൂരങ്ങളിലെ ഏറ്റവും വലിയ പൂരമാണ് തൃശൂർ പൂരം ശിവരാത്രി ഓണം വിഷു മഹാനവമി എന്നുവച്ച് നവരാത്രി അങ്ങനെ ഹിന്ദുക്കൾക്ക് കൂടുതൽ ആഘോഷങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ആണെങ്കിൽ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെ അത് പിന്നെ മുസ്ലീങ്ങൾക്കാണെങ്കിൽ റംസാൻ ഇഫ് ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ അങ്ങനെ രണ്ടെണ്ണം പിന്നെ കൂടുതലും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലീങ്ങളും ആണ് കേരളത്തിൽ കൂടുതലും ഉള്ളത് പിന്നെ പുറ സ ഇന്ത്യയിൽ പുറത്തേക്കൊക്കെ പല മതങ്ങളും ഉണ്ട് അത് പല ആഘോഷങ്ങളും നടക്കുന്നുണ്ട്